വിർച്വൽ റിയാലിറ്റി അഥവാ വി ആർ ഗെയിംമ്സ് കുറേ ഞങ്ങളുടെ കോളേജിൽ വന്നിട്ടുണ്ട് അപ്പം അതിലൂടെ കളിച്ച കുറേ ഗെയിംസുകൾ നല്ല രസമാണ് നമ്മൾ അതിൻ്റെ രീതിയിലേക്ക് അതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ മാറി വരും സബ്വേ സർഫർ പോലെയുള്ള കളികൾ ഈ ആ രീതിയിലുള്ള കളികൾ നമുക്ക് വിർച്വൽ റിയാലിറ്റിയിൽ കളിക്കുമ്പോൾ ഒന്ന് കൂടിയും അനുഭവങ്ങൾ കൂടെ വരും നമ്മൾ ആ ഒരു ലോകത്തേക്ക് പോയ പോലെ നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് അതുപോലെ തന്നെ വെടി വെപ്പ് അങ്ങനത്തെ ഷൂട്ടിങ്ങ് ആയിട്ടുള്ള ഗെയിംസുകൾ നമ്മൾ വിർച്വൽ റിയാലിറ്റി കളിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേദനിച്ച പോലെ തോന്നും നമ്മളെ വെടി വെക്കുമ്പോൾ അവടെയുമിവിടെയും നമ്മൾ കൊള്ളുന്നതു പോലെ തോന്നും അപ്പോൾ നമ്മുടെ മനസ്സിന് ഒരു പേടിയും കാര്യങ്ങൾ വരും അതാണ് ആ ഗെയിംസിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് ബോക്സിങ് പോലത്തെ ഗെയിംസുകൾ നമുക്ക് കുറച്ചും കൂടി ടെക്നിക്കലായി ഉപയോഗിച്ച് നമുക്ക് കളിയ്ക്കാൻ പറ്റുന്നതാണ് വി ആർ വിർച്വൽ റിയാലിറ്റികളുടെ ഗൈയിംസുകൾ കുറച്ചും കൂടി കളി രസത്തിൽ നമ്മൾ കളിക്കാച്ചാൽ വിർച്വൽ റിയാലിറ്റി ഒന്ന് കൂടിയും നല്ല അനുഭവം തരുന്ന ഒരു വിഭാഗം കളികൾ ആണ് വിർച്വൽ റിയാലിറ്റിയിൽ പിന്നെയും വേറെ കളികളെന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് വിർച്വൽ ഗെയിംസ് ഉണ്ട് ഇത് സാധാരണ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വിർച്വൽ റിയാലിറ്റീൻ്റെ ഫീല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഇതിൻ്റെ ഒരു മാസ്ക്ക് പോലത്തെ നമ്മുടെ കണ്ണിൽ വെക്കുന്ന മാസ്ക്ക് പോലത്തൊരു ഐറ്റം നമ്മുടെ ഹെഡ് തല ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മുടെ കൈയിൽ ജോയ് സ്റ്റിക്ക് തന്നിട്ടാണ് കളിക്കാറുള്ളത് അപ്പോൾ ഈ മൾ നമ്മൾ മൾട്ടി പ്ലെയറായിട്ട് നമുക്ക് കളിയ്ക്കാൻ പറ്റും അതായത് രണ്ട് പേരെ വെച്ച് നമുക്ക് ഒരു ടീമായിട്ട് കളിപ്പിക്കാനൊക്കെ പറ്റും ഫുട് ബോൾ പോലത്തൊരു ഗെയിംസ് നമുക്ക് കളിയ്ക്കാൻ പറ്റും ബോക്സിങ്ങ് പോലത്തെ കളികൾ കളിക്കുകയാണെങ്കിൽ നല്ല കുറച്ചു കൂടിയും അടി കൊടുക്കാനും അത് രീതി മാറ്റിക്കൊടുക്കാനൊക്കെ നമുക്ക് നമ്മുടെ ശാരീരിക ഭാഷ കൊണ്ട് തന്നെ മാറ്റാനൊക്കെ പറ്റും

റിയൽ ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ കളിക്കുന്നത് ആ ഒരു അനുഭവം നമുക്ക് ആ അതില്ലാതെ കളിക്കാതെ തന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ പോകാതെ തന്നെ കിട്ടുന്ന ഒരു രീതിയാണ് വിർച്വൽ റിയാലിറ്റിയിലുള്ളത് ഞാൻ കളിച്ചിട്ടുള്ള വിർച്വൽ റിയാലിറ്റീൻ്റെ അനുഭവം അതാണ്